ഞാൻ ഒരു ഓൺലെനായിട്ട് ചെയർ വാങ്ങിയിട്ട് ആ ചെയറിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു അധികമാളും കൂടുതൽ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ഓർഡർ ചെയ്തത് എന്നാൽ ഞാൻ ഞാൻ ആ ചെയർ നമ്മളെ കൈയിൽ എത്തിയപ്പോൾ അതിൻ്റെ കളറൊന്നും സെയിം കളറല്ല അതിനാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ അതിൻ്റെ സ്ക്രാചെസ്സ് വന്നിന് പൈൻറ്റ്സ് ഒക്കെ കുറെ പോയിരുന്നു അപ്പോൾ ഞാൻ നല്ലൊരു ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ ഒരു സാധനം തീരെ ഉപയോഗശൂന്യമായിരിക്കുന്നതാണ് ഇതിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ബട്ട് എല്ലാവരും അതിൽ നോക്കിയപ്പോൾ അതിൻ്റെ റിവ്യൂസ് എല്ലാം നല്ല ഫൈവ് സ്റ്റാർ ഒക്കെ ഉണ്ടെനു പക്ഷെ എനിക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെ വിഷമമായിട്ടുണ്ട് എല്ലാ ഞാൻ ആകെ നാല് ചെയറാണ് വാങ്ങിയത് എന്നാൽ നാല് ചെയറും ഒരുപോലെ ഒന്ന് മാത്രം ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയ എല്ലാം തന്നെ ഫുൾ ബാഡ് ക്വാളിറ്റിയായിരുന്നു എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ല അത്കൊണ്ട് എനിക്ക് ഈ ഈ പ്രോഡക്റ്റ് റിട്ടേൺ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്